ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാക്കുകൾ ട്രാക്ടറുകൾ ട്രാക്ടറുകൾ പല കമ്പനികളുടേതായിട്ടുള്ളത് കണ്ടിട്ടുണ്ട് മെയിൻ ആയിട്ട് ട്രാക്ടറുകൾ ഉപയോഗിക്കുന്നത് കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രണ്ട് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല അപ്പം ഇത് വന്നിട്ട് പാസഞ്ചറിന് വേണ്ടി ഉപയോഗിക്കാനും ചില ഇടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യാനും കൃഷിക്ക് വേണ്ടി സാധനങ്ങൾ കൊണ്ട് വരാനും കൃഷി ഉൽപന്നങ്ങളെ ചന്തകളിൽ കൊണ്ടുപോകാനും വേണ്ടിയിട്ടൊക്കെയാണ് ട്രാക്ടർ ഉപയോഗിക്കുന്നത് അതിൽ വന്നിട്ട് ഐസെർ എന്ന കമ്പനി ആണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഐസർ ഐസർ എന്ന് ഇപ്പം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊരു വാഹനം വാങ്ങിച്ച് ട്രാക്ടർ ആയാലും ലോറി ആയാലും ജീപ്പ് ആയാലും വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മൈലേജ് ആണ് ഏറ്റവും പ്രധാനമായിട്ടും നോക്കുന്നത് അപ്പം ഐസർ എന്ന് പറഞ്ഞ ഒരു ട്രാക്ടർ ആ ട്രാക്ടറിന് വന്നിട്ട് ആദ്യം ഉണ്ടാക്കിയ സമയത്ത് ഒരു സിംഗിൾ പിസ്റ്റൻ സിംഗിൾ സിലിണ്ടർ ഉള്ള ഒരു എൻജിൻ എൻജിനുമാണ് നല്ല ബലമുള്ള ഒരു എൻജിനുമാണ് അപ്പം അത് സിംഗിൾ സ് സിംഗിൾ സിലിണ്ടർ ആവുമ്പോഴത്തേന് ചിലവ് കുറവുണ്ട് അത് ട്രാക്ടറിന് അപ്പം നമുക്ക് കൃഷികാരന് അവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും പക്ഷേ ഇത്തിരി സൗണ്ടിന് വ്യത്യാസം വരും ടക്ക് ടക്ക് ടക്ക് എന്ന് ഓട്ടിരിക്കുന്നത് അപ്പോൾ അതുകൂടാതെ കുറേ കമ്പനികൾ ട്രാക്ടർ ഇറക്കിയിട്ടുണ്ട് മഹീന്ദ്ര ആവാം ജീപ്പ് ആവാം അതുപോലെ മ ഐസർ തേ ഒത്തിരി ആവശ്യമുള്ള ഇത് ഇതുണ്ട് പിന്നെ കൂടാതെ ഇപ്പം ഈ ജാക്ക്ഹാമർ അടിക്കാൻ പോകുന്ന ട്രാക്ടറുകൾ അത് നമ്മുടെ കേരളത്തിൽ അതേ ഉള്ളൂ ബാക്കി ട്രാക്ടറുകളൊന്നും ഇവിടെ ആരും ഉപയോഗിക്കാറില്ല അതിനൊക്കെ വലിയ വണ്ടികളൊക്കെയാണ് ഉപയോഗിക്കുന്നത് കാരണം ഇത് മലം പ്രദേശമല്ലെ ട്രാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കയറ്റങ്ങളൊന്നും കയറി പോവില്ല അത് നിരപ്പായ സ്ഥലങ്ങളിൽ ഹെവി ലോഡുമായിട്ട് പോവാൻ പറ്റും അത് കാരണം നമ്മുടെ നാട്ടിലത് ട്രാക്ടർ ഉപയോഗിക്കാറില്ല ട്രാക്ടർ വന്നിട്ട് വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യയിൽ ഉപയോഗിക്കും കേരള ഉപയോഗിച്ച് ഒഴിച്ച് ബാക്കി എല്ലായിടത്തുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം കൃഷിയുടെ കാര്യങ്ങൾക്കും കൃഷി സാധനം കൊണ്ടുപോകാനും വരാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇത് ഒന്നുകിൽ കൃഷിയുടെ സാധനങ്ങൾ കൊണ്ടുപോകാനും കൃഷി ഉല്പന്നങ്ങൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനും ഒക്കെ കൊണ്ടുപോകുന്ന ഇതാണ് സാധാരണ ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ കാളവണ്ടിയും അതുപോലെ തന്നെ ഒട്ടക ഒട്ടകത്തിൻ്റെ വണ്ടി കുതിര വണ്ടി ഒക്കെ ആയിരുന്നല്ലോ അത് ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഈ ട്രാക്ടറുകളായി പോയി വലിയ വലിയ കർഷകർക്ക് അതാണ് നല്ലത് അപ്പോൾ അവർക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ഉല്പന്നങ്ങൾ മാർക്കറ്റിൽ കൊണ്ടെത്തിക്കാൻ അതുകൊണ്ട് പല സാധിക്കും ഏത് തരത്തിലുള്ള ട്രാക്ടർ എടുത്ത് കഴിഞ്ഞാലും എല്ലാം ഓരോ കമ്പനിയും ഇന്ന് ഇന്നത്തെ കാലത്ത് കോംപറ്റീഷൻ ആണല്ലോ അവർക്ക് മൈലേജ് വേണം അവർക്ക് ലൈഫ് വേണം അതിൻ്റെ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കുമ്പം എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഐസർ തന്നെയാണ് കാരണം ആ ഒരു ചെറിയൊരു വൺ പിസ്റ്റനിൽ തുടങ്ങിയിട്ട് ഇപ്പം ഫോർ സിലിണ്ടർ ഉള്ള എൻജിൻ വരെ അവർ ഇറക്കുന്നുണ്ട് കൂടാതെ അവരുടെ വണ്ടികൾ ഇറങ്ങുന്നുണ്ട് നല്ല വണ്ടികൾ നല്ല മൈലേജ് ഉള്ള നല്ല താക്ക് വില ഉള്ള വണ്ടികൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെയുള്ളത് വരുമ്പം ഞാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് ട്രാക്ടർ ആണ്